എപ്പോഴും തങ്ങളുടെ വേരുകളിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് മനുഷ്യന്മാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയകാല സ്മരണകളെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും കാരണമെന്ന് വെച്ചിട്ടുണ്ടേൽ നമുക്ക് അതായത് പഴയകാല ഓർമകളിലേക്കൊക്കെ തിരിച്ച് പോവാനും ഓർമകളിലേക്ക് തിരിച്ച് പോവാൻ മാത്രമല്ല കാരണമെന്ന് വെച്ചാൽ നമുക്ക് പഴയ കാലത്തേക്ക് തിരിച്ച് പോവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരായിരിക്കും കൂടുതലും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒര് ബാധ്യത കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരു ടൈമ് നമ്മുടെ കാര്യങ്ങളൊക്കെ അച്ഛൻ അമ്മമാര് നോക്കും നമുക്കെന്ത് പൈസ വേണമെങ്കിലും അവര് തരും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ കൂട്ടുകാരുടെയൊപ്പം എത്ര നേരം കളിച്ച് നടന്നാലും കുഴപ്പമില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണം ആ ഒരു പ്രശ്നം മാത്രമേയുള്ളൂ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതുപോലെ പിന്നെ നമുക്ക് വീട്ടിലെ പണിയൊന്നും ചെയ്യണ്ട അങ്ങനെയുള്ള പല ഇതും ഉണ്ട് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം പിന്നേന്ന് വെച്ചാൽ നമ്മളുടെ അച്ഛനും അമ്മയും മാത്രമുണ്ടാവുകയുള്ളു ചീത്ത പറയാൻ അങ്ങനെയൊക്കെ അത് അത്കൊണ്ട് തന്നെ എല്ലാ മനുഷ്യന്മാരും ഏകദേശം എല്ലാ മനുഷ്യന്മാരും പഴയകാല സ്മരണകളിലേക്കും കടന്ന് പോവാനൊക്കെയായിരിക്കും ആഗ്രഹിക്കുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെൽ അവരുടെ വേരുകളിലേക്ക് ഇറങ്ങിപ്പോകാൻ പറയുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മടെ പഴയകാല സ്മരണകളിലേക്കൊക്കെ പോവുന്നതാണല്ലോ നമ്മളർത്ഥം വയ്ക്കുന്നത്